ആ നമ്മൾ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന എ വൺ ഇലക്ട്രിക്ക് മുരിക്കാശ്ശേരിയിലെ

മ് മ് ആ ആ അത് രണ്ടു മാസത്തിനുള്ളിൽ തീർത്താൽ മതിയോ ആ ഇപ്പം നമ്മുടെ ഇലക്ട്രീഷ്യന്മാരെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ഈ തോപ്രാംകുടിയിൽ എവിടെയാണ് സ്ഥലം

രണ്ട് പയ്യന്മാരെ അങ്ങോട്ട് വിടാം അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ഇപ്പോൾ വീട് അത് കുഴപ്പമില്ല അവർ ഏതായാലും വന്നു നോക്കിയിട്ട് എങ്ങനെയാണ് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നുള്ളത് അവർ വന്നിട്ട് പറയും ഇന്ന ഇന്ന സാധനങ്ങൾ മേടിച്ചാൽ അതിൻ്റെ ലിസ്റ്റ് തരും അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം മേടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും മ്മ് മ് ഹ ആ അതൊന്നും കുഴപ്പം അതൊക്കെ നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നത് അല്ലേ അത് നമുക്ക് നമ്മൾ സ്ഥിരമായിട്ട് വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അത് നോക്കി കഴിഞ്ഞിട്ട് വേണം ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ വേണം റിനോവേറ്റ് ചെയ്യുന്നതല്ലെ അപ്പോൾ പല സാധനങ്ങൾക്കും കേടുകളൊക്കെ വന്നിട്ടുണ്ടാവും ചിലപ്പോൾ സ്വിച്ചുകൾ വയർ അതെല്ലാം മാറ്റി ഇടേണ്ടി വരും എന്താണെങ്കിലും അപ്പം മ്മ് മ്മ് മ് മ് ആ അപ്പോൾ അത് മൊത്തത്തിൽ എന്തായാലും മാറ്റേണ്ടിവരും മ്മ് മ്മ് മ് മ്മ് അത് ഓക്കെ അതിപ്പം ഒരു ഒരാഴ്ച കൊണ്ട് ചെയ്ത് തീർക്കാം മ്മ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ അപ്പം നമുക്ക് ഏകദേശം ഒരു പത് എഴുപത്തിയഞ്ച് രൂപ എങ്കിലും വരും ഏകദേശമാണ് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കുറച്ച് എന്തായാലും ഒന്നിന് മുകളിൽ പോകത്തില്ല നിൽക്കും നിൽക്കും അപ്പോൾ ഏതായാലും നാളെ ഇപ്പോൾ സമയം കിട്ടുമോ എന്ന് അറിയത്തില്ല നാളെ വേറൊരു സ്ഥലത്ത് ഒരു അർജൻ്റ വർക്ക് ചെയ്യാനുണ്ട് അപ്പം നാളെത്തെ കഴിഞ്ഞ് എന്തോ പയ്യന്മാര് വരും അപ്പോൾ നിങ്ങൾ വീട്ടിൽ കാണുമല്ലോ അല്ലേ ആ വന്നപ്പോൾ അവർ നോക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ആണ് വേണ്ടത് എന്നുള്ളത് ലിസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം മ്മ് മ്മ അപ്പം എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം ഇത് നേരത്തെ ആരായിരുന്നു ഇത് വയറിങ് ചെയ്തിരുന്നത് എന്ന് അറിയാമോ

മ്മ് ആ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പഴയ ഒരു വയറിങ് അല്ലേ അപ്പോൾ അതിൻ്റെ പ്രശ്നം പ്രശ്നങ്ങൾ വന്നതായിരിക്കും ഇതിപ്പോൾ മാറ്റി ചെയ്യുക ആണെങ്കിൽ മൊത്തത്തിൽ മൊ

ആ അതൊക്കെ പുതിയത് വയ്ക്കാം അതുപോലെ സ്വിച്ച് ബോർഡുകളൊക്കെ പുതിയതായിട്ട് പുതിയ ഇത് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ എല്ലാം മാറ്റി നല്ലത് വയ്ക്കാം ആ ഏതായാലും നാളെ കഴിഞ്ഞ് വരുവേ ആ അപ്പോൾ വന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം മ്മ് എന്നാൽ ആയിക്കോട്ടെ ഓക്കേ ഏതായാലും നല്ല കാര്യം പലതവണ അങ്ങോട്ടും വിചാരിച്ചു